ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കാൻ ആഗ്രഹിക്കുന്നതും സ്മരിക്കാൻ ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ള ഒരു കാലം എന്ന് പറയുന്നത് ഞാൻ ബാല്യത്തിലിരുന്ന കാലം തന്നെയായിരിക്കും അത് എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണെന്നാണ് എന്റൊരു വിശ്വാസം കാരണം നമുക്ക് വലിയ ടെൻഷനോ സമ്മർദ്ദങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ പഠിക്കുക വീട്ടുകാരുമൊത്ത് ക ഇരിക്കുക കൂട്ടുകാരുമൊത്ത് കളിക്കുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് വളരെ സന്തോഷത്തിൽ നടക്കുന്നൊരു കാലം തന്നെയാണ് ബാല്യകാലം എല്ലാവർക്കും അങ്ങനെത്തന്നെയായിരിക്കും അതുകൊണ്ടുത്തന്നെ അത് ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ടുള്ള സമയമാണ് എല്ലാവരും പോകാൻ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതും അങ്ങോട്ടു തന്നെയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ സ്കൂൾ കാലഘട്ടങ്ങളും പിന്നതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരാഗ്രഹം എന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ അഞ്ചു വയസ്സ് വരെ അല്ലെങ്കിൽ ആറ് ഏഴ് വയസ്സ് വരെയുള്ള ക് കാര്യങ്ങളൊന്നും എനിക്ക് ഓർത്തെടുത്താൽ ഓർക്കാൻ പോലും കഴിയുക കഴിയുന്നില്ല അതായത് ഓർമ്മ പോലും ഇല്ലാത്ത കാലഘട്ടങ്ങളാണ് എന്റെ ഒരു വയസ്സും രണ്ട് വയസ്സും അന്നൊന്നും നമുക്ക് ഇങ്ങനെ ഫോട്ടോ പകർത്താനൊ വീഡിയോ എടുക്കാനോ കഴിയുന്ന ഒരു സമയമല്ല അതുകൊണ്ടുത്തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത വളരെ നല്ല കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലില്ലാത്തിടത്തോളം കാലം എനിക്കത് കാണാനും കഴിയില്ല അതുകൊണ്ടുതന്നെ അതൊക്കെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് അതുപോലെതന്നെ എന്റെ ബാല്യകാലത്തിൽ എൻ്റെ കൂട്ടുകാരുമൊത്ത് കളിച്ച സമയങ്ങൾ ഞങ്ങൾ ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട് അതായത് അപ്പം ചുട്ടുള്ള കളി അതുപോലെ വീട്ടിലമ്മയും കുട്ടിയും അച്ഛനും ഒക്കെ ആയിട്ടുള്ള കളി അതുപോലെ അങ്ങനെ ഒരുപാട് കളികൾ ഒരുപാടൊരുപാട് കളികൾ കളിച്ചിട്ടുണ്ട് അന്നൊക്കെ ഈ ഫോണിൻ്റെയൊക്കെ യൂസ് വരുന്നതിനു മുമ്പത്തുള്ള കാലമായിരുന്നു അപ്പോൾ നല്ല എൻജോയ് ചെയ്ത സമയങ്ങളായിരുന്നു അതൊക്കെ അതുപോലെത്തന്നെ അത് നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും ആയിട്ട് നല്ല ബന്ധം അന്ന് നിലനിന്നിരുന്നു കാരണം നമ്മുടെ ഫോൺ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഒരുപാട് അഡിക്റ്റഡാവുന്ന സമയത്തല്ലെ നമുക്ക് പൊതു സമൂഹത്തോടുള്ള വർത്തമാനം തന്നെ കുറയുന്നത് പക്ഷേ അന്നതൊന്നുമില്ലായിരുന്നു അപ്പോൾ എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും സ്കൂളിൽ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് പോവുക പിന്നെ അതുപോലെ കു ക്ലാസിലൊക്കെ ഇരിക്കുക ചില സമയത്ത് ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പിള്ളേരുടെ കൂടെ പോകും അങ്ങനെ ഞങ്ങൾ പോയി ഐസ് ക്രീം വാങ്ങി കഴിക്കും അതുപോലെ അങ്ങനെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ അസംബ്ലിക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ ഹൈറ്റ് കൂടുതലായത് കാരണം ഏറ്റവും ബാക്കിലായിരുന്നു അതുകാരണം അത് അത് അതൊരു രസമാണ് അതുപോലെത്തന്നെ അങ്ങനെ പല കാര്യങ്ങളും വളരെ നല്ല മുഹൂർത്തങ്ങളായിരുന്നു